ഹലോ ഞാൻ കുറച്ച് വർഷങ്ങളായി ഇ പി എഫിൽ സംഭാവന ചെയ്യുന്ന വ്യക്തിയാണ് അപ്പോൾ എൻ്റെ വ്യക്തിഗത രേഖകൾക്കായി നമ്മളുടെ പാസ്സ്ബുക്കൊന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഏത് പോട്ടലിൽ നിന്നാണ് ലോഗിൻ ചെയ്തു നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ വിവരങ്ങൾ ലഭിക്കുകയെന്നുള്ളത് അതിൻ്റെ വിവരങ്ങളൊക്കെയൊന്ന് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് അപ്പോൾ ആ വിവരങ്ങളൊന്ന് കൈമാറിയിരുന്നെങ്കിൽ ഉപകാരപ്രദമായിരുന്നു അതുപോലെ തന്നെ പാസ്സ്ബുക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിൻ്റെ പ്രിൻ്റൗട്ട് എടുക്കാൻ എങ്ങനെയാണ് എവിടെ നിന്നാണ് ഡൗൻലോഡ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്നൊന്ന് അറിയിച്ചിരുന്നെങ്കിൽ വളരെ ഉപകാരപ്രദമായിരുന്നു ഇപ്പോൾ നമുക്ക് നമ്മുടെ വ്യക്തിഗത രേഖകളൊക്കെ എൻ്റെയെല്ലാം പ്രൂഫും എടുക്കേണ്ട സാഹചര്യത്തിൽ നമുക്കിതു കൊടുക്കാൻ പറ്റുമല്ലോ അതുകൊണ്ട് അത് നമുക്കെങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ വളരെ ഉപകാരപ്രദമായിരുന്നു